ഹലോ റൂബി ബാറില് റൂബി റൂബി ബാറിലേക്ക് സ്വാഗതം ആരാണിത്

രണ്ട് ആ ഇത് അ രണ്ട് കേസ്സ് ബിയറൊ രണ്ട് കേസ് ബിയറിപ്പോൾ സ്റ്റോക്കില്ലല്ലോ അതിന് പകരം രണ്ട് കേസ് ബിയറാണെ നാളെ മതിയോ രണ്ട് കേസ് ബിയർ നാളെ രാവിലെ ഇന്ന് കിട്ടാൻ വഴിയില്ല ജേ ഡീം ബെക്കാഡീം സ്റ്റോക്കൊണ്ട് താങ്കൾ അഡ്വാൻസായിട്ട് കുറച്ച് ക്യാഷ് തരയാണെങ്കിൽ ജേ ഡീം ബെക്കാഡീം ഞങ്ങൾ ഈ ബിയറിന് പകരം കുറച്ച് കൂടുതലായിട്ട് എടുത്ത് വെക്ക എന്ത് താങ്കളെന്ത് പറയുന്നു ഒരു ജേ ഡിയാണെങ്കിൽ നമുക്ക് നാൽപ്പത് ഷോട്ടെടുക്കാൻ പറ്റും ഒരു ബെക്കാഡിയാണെങ്കിൽ ബെക്കാഡീടെ ഫുൾ ബോട്ടിൽ ഒരു ബക്കാർഡിയാണെങ്കിൽ നമുക്ക് കൂടിപ്പോയാൽ ഒരു മുപ്പത്തൊന്ന് ഷോട്ടെങ്കിലും നമക്കെടുക്കാൻ പറ്റും ബെക്കാഡിക്കും ജേ ഡിക്കും

ആ ഇപ്പം എഴുപതാൾക്കാരാണെങ്കിൽ താങ്കൾക്കിന്ന് ഇന്ന് തന്നെ വേണം അല്ലേൽ സാധനം ഇന്ന് തന്നെ അത്യാവശ്യമാണ് വൈ അപ്പോൾ എങ്ങനാണി കെ അ ബിയർ ബിയർ ആ അല്ല ബിയറെ ബിയറ് സ്റ്റോക്കില്ല ബൾക്കായിട്ട് തരാൻ സ്റ്റോക്കില്ല നാളെ രാവിലെ ഉള്ളു ഫാൽക്കണായാലും മതിയൊ ഹെലിക്കോൺ ഓക്കെ ആ ഞാൻ ഞാൻ ഒന്ന് നോക്കട്ടെ ഞാൻ ആ നിങ്ങൾ ഒന്നൊന്നൊന്നൊന്ന് വെയിറ്റ് ചെയ്യ് ഞാനൊന്ന് ഒന്ന് ഒന്ന് നോക്കി നോക്കട്ടെ ഞാൻ ഞാൻ ഒരു ഫോൺ കണ്ടു ഓക്കെ ഞാൻ ഞാൻ ഞാൻ ഞാനൊന്ന് മറ്റെ സ്റ്റോർ കീപ്പറോടൊന്ന് ചോദിക്കും സാധനമുണ്ടോന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നു ഞാൻ ആ ഓക്കെ അറിയാം അറിയാം ആ അറിയാം സാർ ഞാൻ ഞാനൊന്ന് നോക്കട്ടെ സാറ് പറഞ്ഞ ആ ബ്രാൻറ്റൊണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പൊത്തന്നെ ആ ബൾക്ക് ഓഡറ് താങ്കളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് താങ്കൾ നമുക്ക് വേണ്ട വേണ്ടപ്പെട്ട കസ്റ്റമറാണ് ഞാനിന്ന് തന്നെ ഇന്ന് തന്നെ ഏൽപ്പിക്കാം ഒ ഞാൻ ഞാൻ നോക്കട്ടെ കിങ് ഫിഷറില്ലാത്ത ബ്രാൻറ്റൊണ്ടന്ന് നോക്കട്ടെ കട്ട് ചെയ്യാമോ ഞാൻ ഒന്ന് തിരക്കട്ടെ ആ ആ അത് ഓക്കെ ആ ഓ ആ ആ ഓ താങ്കൾ പറഞ്ഞ സാധനമുണ്ട് രണ്ട് കേസ് ബിയറ് കിട്ടും കിങ്ഫിഷറല്ല വേറെ ബ്രാൻറ്റാണ് സാധനമുണ്ട് സ്റ്റോർ കീപ്പറിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കേസ് ബിയറർ ഓഡറ് കൺഫേമല്ലേ സാർ ഒ ഒരു കേസ് ബിയറിൽ നാൽപ്പത് ബോട്ടിൽ കാണും നാൽപ്പത് ബോട്ടിൽ ഓ നാൽപ്പത് ബോട്ടിൽ രണ്ട് കേസും കൂടെയാവുമ്പോൾ എൺപത് നിങ്ങൾ പത്തെണ്ണം കുറയ്ക്കാന്ന് പറഞ്ഞാ നിങ്ങൾ സ്ഥിരം കസ്റ്റമറായത് കൊണ്ട് കുറയ്ക്കാം കുഴപ്പമില്ല

അപ്പോൾ താങ്കൾക്ക് എത്ര എത്രയാണാണാവശ്യം കുറയ്ക്കാൻ വേണ്ടത് കുറയ്ക്കാം ആ എഴുപതെണ്ണം വേണം ഓക്കെ അപ്പോൾ പ ഒരു കേയ്സിലെ പത്തെണ്ണം കുറയ്ക്കുക രണ്ട് കേസ് താങ്കൾക്ക് ഞാൻ നൽകുന്നു ഓ ഓ ഓ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ